നമ്മുടെ നാട്ടിൽ സ്വകാര്യ ആശുപത്രികൾ രണ്ട് മൂന്നെണ്ണം ഉണ്ട് കാരണം എന്നു വച്ചു കഴിഞ്ഞാൽ അവിടെ ഉള്ളതെന്നു വച്ചു കഴിഞ്ഞാൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലുള്ള ചികിത്സയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് ഏകദേശം എല്ലാവരും അവിടെ പോകുന്നത് പക്ഷെ അവിടെയൊക്കെ നല്ല അതായത് നമ്മൾക്കിപ്പോൾ എന്ത് അസുഖത്തിന് പോയാലും അവിടെ നല്ല റേറ്റാണ് നമുക്കവിടെ ഇപ്പം ഇവിടെയുള്ള സെൻ്റ് ജോസഫെന്ന് പറയുന്ന ഹോസ്പിറ്റലുണ്ട് പിന്നെ ജ്യോതിയെന്നു പറഞ്ഞിട്ടൊരു ഹോസ്പിറ്റലുണ്ട് ഇങ്ങനത്തെ രണ്ട് ഹോസ്പിറ്റലുകൾ ഉണ്ട് ഇവിടെ പിന്നെയെന്ന് വെച്ചാൽ അവിടെന്നു വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര റേറ്റാണ് നമ്മൾക്കിപ്പം എന്തെങ്കിലും ഒന്ന് ഒരു അസുഖത്തിന് പോയി കഴിഞ്ഞാൽ അവിടെ ഒരു ചീട്ടെടുക്കാൻ വേണ്ടീട്ട് ഇരുന്നൂറ് രൂപയും പിന്നെ അവിടെയുള്ള മരുന്നിനൊക്കെയാണെങ്കിൽ നല്ല റേറ്റുമാണ് ഇപ്പം നമ്മളവിടെ എന്തെങ്കിലും ആവശ്യത്തിന് അഡ്മിറ്റാവുകയോ അങ്ങനെ എന്തേലും വന്നു കഴിഞ്ഞാൽ നമ്മളെ എന്താ പറയുക നമ്മളെ എങ്ങനൊക്കെ പിഴിയാമോ അങ്ങനെയൊക്കെ അവർ പിഴിഞ്ഞെടുക്കും എത്തിപ്പെടാനെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇവിടുന്ന് എങ്ങനെ പോയാലും നമുക്കിപ്പം മാനന്തവാടിയിൽ ഗവൺമെൻ്റ് മെഡിക്കൽ കോളേജിൽ പോയാലും രണ്ടും ഏകദേശം സെയിമ് ഒരേ സ്ഥലങ്ങളിലാണ് നിൽക്കുന്നത് അപ്പം നമുക്ക് എങ്ങനെയാണെങ്കിലും വണ്ടിയിലാണ് പോകേണ്ടത് വണ്ടി പോയിക്കഴിഞ്ഞാലാണ് അവിടെ രണ്ട് സ്ഥലത്തും എത്തുകയുള്ളൂ ഈ ഇങ്ങനത്തെ കുറേ ബുദ്ധിമുട്ടുകളാണ് ഈ സ്വകാര്യാശുപത്രികളിലൊക്കെ നടക്കുന്നത്